എനിക്ക് ടിവിയിൽ സീരിയലാണ് ഏറ്റവും ഇഷ്ടം സിനിമക്കെല്ലാം മുമ്പെല്ലാം പൊയ്ക്കോണ്ടുണ്ടായിരുന്നു പിന്നെ ചെറുതുണ്ടാ ചെറുതിൽ ചെറുതിലെന്ന് പറഞ്ഞെങ്കിൽ സിനിമ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഒന്നും കൊണ്ട് പോവാൻ ആളില്ല പിന്നെ അങ്ങനെ ഇല്ലെ ഇതെല്ലാം ഉണ്ടാവും അപ്പം പഴയ പഴയ സിനിമയെല്ലാം ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ ടി വി വെയ്ക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇരുന്നിട്ട് കാണും പിന്നെ ഇത് എല്ലാവരും ഇങ്ങനെ വീട്ടിൽനിന്ന് എപ്പോഴും വഴക്കാണെന്ന് അമ്മയും അ അച്ഛനും കൂടെ പിന്നെ ഏടെങ്കും രാത്രിയെല്ലാം പോവുമ്പം എവിടെയെങ്കിലും സിനിമ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത്ര ഇഷ്ടമാണ് എനിക്ക് സിനിമ അപ്പോൾ രാത്രിയെല്ലാം ഇങ്ങനെ മെത്തെ മുൻപെല്ലാം ആരെ വീട്ടിലും ടി വി നമ്മളെ വീട്ടിലൊന്നും ടി വി ഇല്ല അപ്പം അടുത്ത വീട്ടിലുണ്ട് അവർ വല്യ വീടാണ് അപ്പം അവരെ വീട്ടിൽ പോവും ചെറുതുണ്ടാവുമ്പോൾ അവിടെ അവർ മറ്റേ ഇതെല്ലാം വീഡിയോയിൽ ആക്കിയിട്ട് പിന്നെ ഇത് സിനിമ വെക്കും സിനിമ വെച്ചിറ്റായിറ്റാവുമ്പോൾ നമ്മൾ ഒളിച്ച് നിന്നിട്ട് പോവും പിള്ളേര് ഒളിച്ച് നിന്നിട്ട് പോയിട്ട് അവരെ ജനലിൽ കൂടെ ആണ് നോക്കൽ അപ്പം രാത്രിയെല്ലാം ആയെങ്കിൽ വീട്ടിൽനിന്ന് വഴക്ക് കേൾക്കും എന്നാലും പോവും അത്രയും ഇഷ്ടമാണ് പിന്നെ പിന്നെ അത് സീരിയലിലേക്ക് മടങ്ങി സീരിയൽ പിന്നെ പഴയകാല സീരിയലെല്ലാം ഉണ്ടാവുമല്ലോ ഹിന്ദിയിലെല്ലാം അപ്പം ഭാഷ അറിയുന്നില്ലെങ്കിൽ പോയി കാണും ദൈവത്തിൻ്റെ സീരിയലും പിന്നെ രാമൻറ്റേയും പിന്നെ അങ്ങനെയുള്ള സീരിയലെല്ലാം ഉണ്ടായിരുന്നല്ലൊ ശ്രീരാമൻറ്റേയും പിന്നെ അങ്ങനെയുള്ള സീരിയലെല്ലാം പോയിട്ട് കാണും പിന്നെ ഇത് വീട്ടിൽ പിന്നെ വീട്ടിൽ ഒരു ചെറിയ ടി വി വാങ്ങിച്ചു പിന്നെ വീട്ടിൽനിന്ന് കാണാൻ തുടങ്ങി അപ്പോളങ്ങനെ ഉച്ചക്ക് ശേഷം സീരിയലെന്ന് പറഞ്ഞെങ്കിൽ എൻ്റെ പ്രാണനാണ് അപ്പം സീരിയൽ തന്നെ നോക്കും ഉച്ചക്ക് ശേഷം ഒരു രണ്ട് മണിക്ക് പിന്നെ അപ്പം മലയാളം മാത്രമേ കിട്ടൂ മലയാളം ഉച്ചക്ക് രണ്ട് മണിക്ക് തുടങ്ങിയിട്ട് വൈകുന്നേരം ഒരു ആറ് മണി വരെ കിട്ടും അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ വീട്ടിലേ ഉള്ളൂ ടി വി അപ്പോൾ എല്ലാവരും അടുത്ത വീട്ടിൽനിന്ന് എല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരും അപ്പം എല്ലാവരും ഇരുന്നിട്ട് നമ്മൾ ടി വി കാണും പിന്നെ അങ്ങനെ ഇതാക്കി ഇപ്പോൾ മുമ്പത്തെ സീരിയല് എന്ന് വെച്ചാൽ അത്രയ്ക്ക് എല്ലാം ഉ ണ്ടായിരുന്നു ഒക്കെ ഇപ്പോൾ സീരിയൽതന്നെ ഇപ്പോഴായാലും എനിക്ക് സീരിയല് തന്നെ ഇഷ്ടം മുമ്പത്തെ സീരിയല് അന്ന് കഥയെല്ലാം നല്ല പാങ്ങില് കേൾക്കുന്നതും പറയുന്നതും അതെല്ലാം ഇതാക്കും അപ്പം ഞാൻ ഈ സീരിയലെല്ലാം നോക്കീട്ട് ഞാൻ മുമ്പെ ദിനേശ് ദിനേശ് കമ്പനിയിൽ പോയിട്ട് ബീഡി തെറുക്കും അപ്പോൾ ഈ സീരിയലെല്ലാം നോക്കും രാത്രി പിന്നെ രാത്രി വന്നിട്ട് നോക്കീട്ട് പിന്നെ ഉച്ചക്ക് ശേഷം നമുക്ക് പറ്റൂലല്ലോ നമുക്ക് ആറ് മണിയാവണം അവിടുന്ന് വിടണമെങ്കിൽ അപ്പം ഇതുതന്നെ ഉണ്ടാവും മനസ്സിൽ അപ്പോൾ വന്നിട്ട് എങ്ങനെ എങ്കിലും ഇതാക്കിയിട്ട് പിന്നെ ആരോടെങ്കിലും കഥ ചോദിക്കും വീട്ടിലുള്ളവരോട് ചോദിച്ചിട്ട് അതിനെ പോയി അതിനെ പോയിട്ട് കം അവിടെ ഇരുന്നിട്ട് നമ്മൾ കമ്പനിയിൽ പോയിട്ട് കഥ പറയും കഥ പറഞ്ഞിട്ട് അപ്പം അവർക്കെല്ലാം എന്നെ ഇഷ്ടമാണ് ന്താ കാരണം ഈ കഥയെല്ലാം പറഞ്ഞ് കൊടുക്കുന്നത് കൊണ്ട് അല്ല അപ്പോൾ എല്ലാവരും ഉച്ചക്ക് ഇരുന്നിട്ട് നമ്മൾ ചോറുണ്ടിട്ട് ഉച്ചക്ക് ഈ ബീഡി തെറുക്കും ഇത് കഥയും പറഞ്ഞിട്ട് അങ്ങനേ ഇരിക്കും അപ്പം ഞാൻ മതിയാക്കുന്നു ഞാൻ പിന്നെ എൻ്റെ ചെറിയ മകൾ കുഞ്ഞായിരിക്കുമ്പോൾ ഇവിടുത്തെ ഭർത്താവിൻ്റെ അമ്മക്ക് കാണാതായി അങ്ങനെ നമ്മൾ നിർത്തി ബീഡി പോവുന്ന പണി നിർത്തി അപ്പോൾ എല്ലാവരും സങ്കടത്തോടെ പറയും നിങ്ങൾ പോയെങ്കിൽ നമുക്ക് ആര് കഥ പറഞ്ഞ് തരും ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ പറയും ഞാനെപ്പോഴെങ്കിലും വരും സീരിയലെല്ലാം നോക്കീട്ടുതന്നെ ഇപ്പം ഉച്ചയ്ക്ക് നമുക്ക് കാണാമല്ലോ ഉച്ചക്ക് കണ്ടിട്ട് ഞാൻ വന്നിട്ട് നിങ്ങളോട് ആഴ്ച്ചക്ക് ഒരു ദിവസം വന്നിട്ട് കഥ പറയും അങ്ങനെയെല്ലാം പറയലുണ്ട് ഇങ്ങനെ ഇപ്പോഴെങ്കിലും ഇങ്ങനെ സീരിയൽതന്നെ സിനിമ വല്യ ഇഷ്ടമല്ല സിനിമക്കും പോവും പിന്നെ എല്ലാവരും വീട്ടിൽനിന്ന് എല്ലാവരും പോവും അപ്പം ഞാൻ ഈ സീരിയൽ എന്നെങ്കിലും അടുത്തെല്ലാം പരിപാടിയുണ്ടെങ്കിൽ ഞാൻ രാത്രി എന്തിനിപ്പ വെക്കുന്നത് പകൽ വെച്ചെങ്കിൽ പോരെ അപ്പോൾ നമുക്ക് പോയിട്ട് സീരിയല് അത്രയും പ്രാണനാണെൻ്റെ സീരിയല് അപ്പോൾ പിന്നെ സീരിയല് നോക്കെ പകൽ വെച്ചങ്കിൽ നമുക്ക് സീരിയല് രാത്രി കാണാല്ലോ അപ്പം രാത്രി എന്നെങ്കിലും ഇവിടെ തെയ്യം കേട്ടോ പിന്നെ അങ്ങനെ ഉത്സവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സീരിയല് വിട്ടിട്ട് എനിക്ക് പോവാൻ മനസ്സ് വരലില്ല അപ്പോൾ ഒരെട്ട് മണി വരെ ആക്ക് അവർ അടുത്ത വീട്ടുകാരോട് പോവുമ്പം പറയും ഒരെട്ട് മണിക്ക് പോവാം എട്ടരക്ക് പോവാം അപ്പം അത്രോളമിതങ്ങ് കാണാല്ലോ പിറ്റേ ദിവസം പകലെന്ന് പറഞ്ഞെങ്കിൽ രാത്രിയും എപ്പോഴും വഴക്കാണ് വീട്ടിൽ ഞാൻ എപ്പോഴും സീരിയൾ തന്നെ വെച്ചിരിക്കും അപ്പോൾ ഈ എല്ലാം നെറ്റ് കലക്ഷനും എല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ സീരിയലെ നോക്കും അപ്പം പറയും നിങ്ങൾക്ക് എപ്പോഴും ഇത് തന്നെയാ പൈസ ഇത്രയെല്ലാം കിട്ടിയിട്ട് ആയിട്ടാവുമ്പോൾ നമുക്കൊരു നോക്കാൻ കഴിയുന്നില്ല ഇത് ഇന്നുതന്നെ നീതന്നെ നോക്കുവെന്ന് അപ്പം ഞാൻ പറയും പകൽ നിങ്ങൾ നോക്കിക്കോ രാത്രി ഞാൻ നോക്കും അങ്ങനെ എപ്പോഴും വഴക്കാണ് കുട്ടികളായെങ്കിലും അങ്ങനെ പറയുന്നത് കുട്ടികൾക്ക് അങ്ങനെ എന്തെല്ലാം കാണണം അപ്പം ഞാൻ ഈ സീരിയലുണ്ടെങ്കിൽ ആറ് മണിക്ക് ശേഷം ഒരു പത്ത് മണി വരെ ഞാൻ ടി വി വിട്ട് കൊടുക്കൂല്ല ഞാൻ തന്നെ നോക്കും അപ്പോൾ ഭർത്താവിനും അതേയെന്ന് ഇപ്പോൾ ഇരുന്നിട്ട് നോക്കുന്നുണ്ട് സെ ഇതായില്ലല്ലോ രക്ഷയില്ല അതുകൊണ്ട് ഇപ്പോൾ എന്നെപ്പോലെതന്നെ സീരിയല് ഓറും നോക്കുന്നുണ്ട് അങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഇതേ നർച്ചെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടുന്നതെപ്പോഴും സീരിയൽതന്നെ പിന്നെ സിനിമയ്ക്ക് പോവും എപ്പോഴെങ്കിലും വീട്ടുകാർ ഒന്നിച്ച് അവരെല്ലാം ഒന്ന് ഒന്നിച്ച് കൂടീട്ട് എല്ലാവരും പോവും അപ്പം ഞാൻ പറയും ഞാൻ ഇന്ന് വരുന്നില്ല ഞാൻ സീരിയല് നോക്കാൻ ഇരിക്കുന്നുവെന്ന് അപ്പം അതിന് എന്നെ മകൻ വഴക്ക് പറയും നിങ്ങൾക്ക് എപ്പോഴും സീരിയലല്ലെ ഒരു പോയിട്ടൊരു ഇതെല്ലം കാണാമല്ലോ പോയി അപ്പം അവര് മൂന്ന് പേരും പോവും അച്ഛനും മകനും മകൻ്റെ ഭാര്യയും പോവും അപ്പം ഞാൻ ഈ സീരിയലിന് വേണ്ടീട്ട് രാത്രീ വീട്ടിൽത്തന്നെ ഇരിക്കും ഞാൻ പോവില്ല അപ്പോൾ വരുമ്പോൾ പത്ത് മണി പതിനൊന്ന് പത്ത് പത്തര എല്ലാം കഴിഞ്ഞെങ്കിൽ ഞാൻ പറയും അത് എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിക്കുമ്പം മതി നീ സീരിയല് നോക്കീട്ട് ഇരിക്കുന്നതിനെ കൊണ്ടല്ലെ നിനക്കും വന്നുകൂടെ അങ്ങനെയെല്ലാം പറയും എന്നോട് അന്നെങ്കിലും ദേഷ്യം കേട്ടിട്ടെങ്കിലും ഞാൻ നോക്കിക്കോ നോക്കീട്ടുതന്നെ ഇരിക്കും എന്നെങ്കിലും അഥവാ ഒരു ദിവസം രാത്രി കറണ്ട് പോയി കഴിഞ്ഞാൽ എന്നെങ്കിൽ എനിക്ക് പരവേശമാണ് ഇത് കണ്ടില്ലല്ലോയെന്ന് പറഞ്ഞ് കഴിഞ്ഞ് പിറ്റേ ദിവസം കാത്തിരുന്നിട്ട് പിറ്റേ ദിവസം ഉച്ചക്കെല്ലാം കറണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇതാക്കും പിന്നെ പ്രശ്നമൊന്നുമില്ല അന്ന് പറഞ്ഞെങ്കിലും അത് നോക്കി കഴിഞ്ഞിട്ടാവുമ്പോൾ അതിൻ്റെ കഥ മാറി പിന്ന അതുതന്നെ കണ്ടിട്ടതിന് ടെൻഷനടിക്കുന്ന അങ്ങനത്തെ ഒന്നും സംവിധാനമില്ല എന്നെങ്കിൽ എനിക്ക് മുമ്പപ്പോൾ കണ്ടതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല അത് കണ്ടു ഹാപ്പിയായി പിന്നെ മറന്നു അങ്ങനെ ഒരു സീരിയൽ ഒരു ദിവസം കണ്ടിട്ട് പിന്നെ പിറ്റേ ദിവസം അതിൻ്റെ കഥ ഇങ്ങന്നെ കാണണം കാണുമെന്നെല്ല ഒരു തോന്നിശ്ശയാണ് അപ്പം തോന്നും അപ്പം അതിൽതന്നെ അഡിക്റ്റ് അതല്ല അടിമ അല്ലാ എന്നെങ്കിലും സീരിയലൊക്കെ നല്ല പോലെ കാണും